അതെ ആരാണ് വിളിച്ചത് അല്ല എന്താണ് വിളിച്ചത് എന്താണ് വിഷയം വിഷയമെന്തെങ്കിലും എന്നാണ് പോവുന്നത് ഓക്കെ എത്ര ദിവസത്തെ പ്രോഗ്രാമാണ് അതൊന്നുമല്ല അത് ഒന്ന് ഒന്ന് എഴുതിയൊന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേര് കേട്ടോ അത് നിങ്ങൾ വീട് ലോക്ക് ചെയ്തിട്ടല്ലേ പോകുന്നത് ആ അതുപോലെ തന്നെ നൈബേഴ്സ്സ് രണ്ടു പേരുടെ ഫോൺ നമ്പറും അതിനകത്ത് കാണിച്ചേക്കണേ ഓക്കെ അതുപോലെ തന്നെ അതുപോലെ വീട്ടിൽ ഒത്തിരി വിലപിടിപ്പുള്ള ഗോൾഡോ പണം ഒക്കെ സൂക്ഷിക്കാതിരിക്കുകയായിരിക്കും ബുദ്ധി അത് അങ്ങനെ വല്ലതുമുണ്ടോ അങ്ങനെ സാഹചര്യമുണ്ടോ ആ വീടിന്റെ ലോക്കൊക്കെ സംവിധാനങ്ങളൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ ആ കൃത്യമായിട്ട് അതെല്ലാം ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തിരിക്കണം രണ്ടാമത് ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ മതി രണ്ടാമത് അടുത്ത് തൊട്ടടുത്തുള്ള നേയ്ബേഴ്സ്സ് ഏറ്റവും ക്ലോസായിട്ടുള്ള രണ്ട് നേയ്ബേഴ്സിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കൂടി കൊടുക്കണേ പിന്നേ വേറേ ഒരു കാര്യം കൂടി പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിന്റെ മെമ്പറ് നിങ്ങളുടെ മെമ്പർ ആരാണ് ആ മെമ്പറെ കൂടി ഈ വിവരമൊന്ന് അറിയിച്ചിരിക്കണം കാരണം ജനപ്രതിനിധി അല്ലേ ഓക്കേ പിന്നെ ഈ പ്രോഗ്രാം നിങ്ങൾ ഒറ്റയ്ക്കാണോ പോകുന്നത് അതോ ഒരു പാക്കേജ് ആയിട്ടാണോ പോണേ നിങ്ങളുടെ നേയ്ബേഴ്സൊക്കെ അടുത്തുണ്ടോ അതിൽ ഏങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ ആ നിങ്ങളുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ വിവരമൊന്ന് പറയണം രണ്ടാമത് നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ്സ് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരെ ഇൻഫോം ചെയ്യണം കാരണം അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി പോലീസിന്റെ ഹെൽപ് ഉണ്ടാവും നിങ്ങളുടെ നമ്പറ് ഡീറ്റേയ്ൽസ്സ് കാര്യങ്ങളെല്ലാം തരണം പിന്നെ വീട് വീട്ടു നമ്പറ് പേര് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഓക്കേ പിന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് വിളിച്ചു പറഞ്ഞാൽ മതി ജസ്റ്റ് വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ പട്രോളിങ്ങൊക്കെ അതിലെ ഉണ്ട് പിന്നെ ജസ്റ്റ് ഇൻഫോം ചെയ്യണം ഒന്ന് വന്നു വന്നു കഴിയുമ്പോൾ വീടിൻ്റെ പരിസരത്ത് വീടിന്റെ പരിസരത്ത് സീസീറ്റീവീ കാര്യങ്ങൾ സംവിധാനങ്ങൾ വല്ലതുമുണ്ടോ അടുത്ത് എവിടെയേലും വീട്ടിലോ അല്ലെങ്കിൽ പുറത്ത് എവിടേ എങ്കിലുമുണ്ടോ ആ അപ്പം അവരോട് ഇത് ഒന്ന് ഒന്ന് സൂചിപ്പിച്ചേരെ കാരണം ഓൾറെഡി ഓൾറെഡീ ഓൺ ആയിരിക്കണമല്ലോ കാര്യങ്ങളൊക്കെ ഏ അതിൽ നല്ല റിക്കോഡ്സ് കാണും എന്തേലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾക്ക് അത് എടുക്കാലോ ഓക്കേ കുഴപ്പമില്ല അപ്പം പോകുന്നതിന് മുമ്പ് തന്നെ സ്റ്റേഷനിൽ വന്നു അതൊന്ന് എഴുതി കൊടുത്തു അവിടെ റൈറ്ററുണ്ട് റൈറ്റർ എഴുതി കൊടുത്തിട്ടേ പോകാവുള്ളേ അവർ പറയും അതിന്റെ ഡീറ്റേയ്ൽസ് എന്തൊക്കെ വേണമെന്നുള്ളത് പറയും മൂന്ന് മൂന്ന് മിനിറ്റ് ആയോ ആ എത്രനുള്ളതാണ് എങ്കിൽ ഞാൻ സംസാരിപ്പിക്കാം ഓക്കേ കട്ട് ചെയ്യാമല്ലോ